ഹലോ നിങ്ങളിപ്പോൾ എവിടെയാണ് ആ അവിടെ നേരെ ഒരു ഓട്ടോ സ്റ്റാന്റ് കണ്ടോ ആ അവിടെ ഓട്ടോ സ്റ്റാന്റിന്റെ അവിടെ ഒരു കുരിശ് പള്ളി ഉണ്ട് അതിന്റെ നേരെ വരിക നേരെ വരുമ്പം പിന്നെ നേരെ വന്നാൽ മതി എങ്ങോട്ടേക്കും വളഞ്ഞൊന്നും പോവേണ്ട പിന്നെ അവിടെ പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പം കുറച്ച് അതായതൊരു ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു സൊസൈറ്റി കാണും പാൽ സൊസൈറ്റി ഉണ്ടവിടെ അവിടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നേ നേരെ വരിക അപ്പോൾ കുറേ ഗ്രാമം ഒക്കെ ഉണ്ടാവും അതായത് അഗ്രഹാരം കുറേ ബ്രാഹ്മിൻസ് ഒക്കെ താമസിക്കുന്ന ഒരു ഗ്രാമം ഉണ്ട് അതുകഴിഞ്ഞ് കുറച്ച് താഴത്തേക്ക് എല്ലാം നേരെ തന്നെ വന്നാൽ മതി ഈസി ആയിട്ട് വേറെ വഴിയിൽക്കൂടെ ഒന്നും പോവേണ്ട അപ്പം അതിലെ വന്നിട്ട് താഴെ ഒരു കുളമുണ്ട് കുളം കഴിയുമ്പോൾ വലിയൊരു കയറ്റം കാണും കയറ്റം കഴിഞ്ഞിട്ട് ഒരു നീല പെയിന്റ് രണ്ട് വീട് കഴിയുമ്പം ഒരു നീല പെയിന്റ് അടിച്ചിട്ട് രണ്ട് നില വീടുണ്ടാവും അവിരു ട്രാക്ടർ ഉണ്ടാവും അതിന്റെ താഴേക്ക് ഒരു പിന്നെ കോൺക്രീറ്റ് റോഡ് അതിന്റെ ഫസ്റ്റ് വീടല്ല രണ്ട് ഒറ്റനില വീടാണ് രണ്ടാമത്തെ അതിൽ രണ്ടാമത്തെ വീട് ഒരു ഗ്രേ കളർ പെയിന്റ് അടിച്ച വീടാണ് കേട്ടോ അവിടെ വന്നാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ